നല്ല ആരോഗ്യമുള്ള മൃഗത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഇപ്പോൾ പശു ആണെങ്കിൽ അയവിറക്കുക അയവിറക്കുക എന്ന് പറയും അങ്ങനെ ചെയ്യുന്ന മൃഗം കാരണം അതിനു നല്ല ആഗ്രഹമുണ്ടാകും ഭക്ഷണം കഴിച്ച് റസ്റ്റെടുക്കുമ്പോൾ ഇങ്ങനെ അയവിറക്കുന്ന ഭക്ഷണം മൃഗം മൃഗം പിന്നെ നമുക്കൊരു മൃഗത്തിനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ കണ്ണുകൾ കാല് അതിൻ്റെ മുഖം അതൊക്കെ എനർജിയുള്ളതാണെങ്കിൽ എല്ലാ രീതിയിൽ തന്നെ മൃഗങ്ങളാണെങ്കിലും നല്ല രീതിയിൽ തന്നെയിരിക്കും പിന്നെ ഉപദേശം സ്വീകരിക്കാറുണ്ട് ഇടയ്ക്ക് ഒന്നിനെ കണ്ടാൽ അറിയത്തില്ല പക്ഷേങ്കിൽ ഒരാളുടെയെങ്കിലും പരിചയം അറിവുള്ള ആൾക്കാരുടെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും മൃഗങ്ങളെ മേടിക്കാറുള്ളൂ പിന്നെ ഒരു പട്ടിക്കുഞ്ഞിനെ മേടിച്ചിട്ടാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചിട്ടാണ് അതിൻ്റെ മേടിച്ചത് തന്നെ അതിന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ട്രീറ്റ്മെൻ്റുകൾ ആവശ്യമുണ്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഇഞ്ചക്ഷൻസ് എന്നാണ് വാക്സിനേഷൻ എന്താണ് അതിനെ എന്തെല്ലാം ഫുഡ് കൊടുക്കണം അതിനെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് പരിപാലിക്കാൻ സാധിക്കും പിന്നെ ഇപ്പഴേ യൂട്യൂബും ഈ ഡിജിറ്റൽ മീഡിയയിലൂടെയെല്ലാം ഇതിനെക്കുറിച്ച് വളർത്തു മൃഗങ്ങളെ പരിപാലിക്കേണ്ട രീതിയെല്ലാം ഉണ്ട് അപ്പം അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയും കേട്ടും അതനുസരിച്ചാണ് കൊണ്ടുപോകുന്നത്